ഹലോ ബിന്ദു ടീച്ചർ അല്ലേ ആ ടീച്ചറെ പിന്നെ ഞാൻ ടീച്ചറെ ക്ലാസ്സിലെ ഒരു ആദിദേവ് ഇല്ലേ ഓൻ്റെ അമ്മയാണ് വിളിക്കുന്നത് ആ അതെ ടീച്ചറെ ഇപ്പോൾ ഭയങ്കര ബാക്കോട്ടേനു അത് ക്ലാസ്സിൽ എങ്ങനെയാണ് കേൾക്കാൻ വേണ്ടിയിട്ട് വിളിച്ചയാ ടീച്ചറെ വീട്ടിൽ ഭയങ്കര മടി ആ ആ ആ ആ ആ ആ അതെയോ അതെയോ ചെയ്തോ ആ ആ ആ ആ അത് എന്തോ പ്രശ്നം ഇല്ല ടീച്ചറെ നല്ല പാങ്ങില് പേടിപ്പിച്ച് നോക്ക് ചൂരൽ കാണിച്ചാൽ മതി ഓന് പേടി ഉണ്ട് വീട്ടിൽ പേടി ഉണ്ട് അത് ഞാൻ പേടിപ്പിക്കാത്തത് കൊണ്ട് വീട്ടിൽ പേടിപ്പിച്ചാൽ മാത്രം പോരല്ലോ ടീച്ചറ് പേടിപ്പിക്കണമല്ലോ ടീച്ചറ് നല്ല പാങ്ങിൽ ഒന്ന് പേടിപ്പിക്ക് ഉം ആ ആ ആ ആ

അതെ അതെ ആ ആ ആ ആ അത് തന്നെ ആ അതെ അതെ അതെ അതെ ആ അത് തന്നെ ടീച്ചറെ കഴിഞ്ഞ പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടായിന് ഇപ്പോൾ മാർക്ക് നല്ലോണം കുറഞ്ഞ ബേജാറ് ആയിപ്പോയി എനിക്ക് ഇംഗ്ലീഷിൽ എല്ലാം മാർക്ക് തീരേ ഇല്ല ഹിന്ദിക്ക് എല്ലാം എ ഗ്രേഡ് ഉണ്ട് എന്ത് കാര്യം അത് ആ ആ ആ ആ അതെ അതെ ആ ആ ആ ആ

ആ ആ അത് തന്നെ ഹും ഹും ഹും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തും പറയില്ല ടീച്ചറെ എന്ത് പരിഹാരം കണ്ടോ ടീച്ചറ് നല്ല ടീച്ചർക്ക് കൈയ്യുന്ന രീതിയിൽ നോക്കി പേടിപ്പിക്ക് ഓനെ നോക്കാം ഓന് ഉഷാറ് ആകുന്നുണ്ടോ എന്ന് ഓന് ഇങ്ങനെ ഓന് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ടീച്ചറെ ശരി ശരി ശരി